എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലെന്നു പറയുമ്പോൾ പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഒരു എല്ലാവരും ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു സാധനം ഈ ബാലരമയും കളിക്കുടുക്കയും കാര്യങ്ങളൊക്കെ ആണ് അതിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും അതിനോട് അനുബന്ധിച്ച് വരുന്ന ഓരോ സ്റ്റോറീസും കാര്യങ്ങളാണെങ്കിലും ഈ ഒരു കണ്ടിന്യൂ ആയിട്ട് വരുന്നതും വളരെ വളരെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള കാര്യാങ്ങളൊക്കെയായിരിക്കും അതിലൂടെയുണ്ടാവുക അത് ഓരോ ലക്കങ്ങളായിട്ടു വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്ത് അതിലെ ഓരോ സ്റ്റോറീസും കാര്യങ്ങളുമെടുത്തെടുത്ത് വായിക്കുകയും കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ ചെയ്യാറുള്ളതായിരുന്നു അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും അവരവരുടേതായ ഈ എന്താണ് വായനശാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഓരോരോ ഓ ലക്കങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കുകയും അവിടുന്നതെടുത്ത് കളക്റ്റ് ചെയ്ത് വായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ഒക്കെ ചെയ്യാറുള്ളതാണ്